ആ പറഞ്ഞോ ആ അതെ ആ എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ആരായിരുന്നു ആ എന്നായിരുന്നു മെയ് അഞ്ചിനോ ആ ഇവിടെ വേറെ മെയ് അഞ്ചിന് വേറെ കല്യാണം ഒന്നും ഇല്ല ഞായറാഴ്ച അല്ലേ ഞായറാഴ്ച കുഴപ്പം ഒന്നുമില്ല ഒരു പത്ത് മണി മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പാട്ട് കുർബാന വയ്ക്കാം ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് മേളിൽ എടുക്കും അത് കാരണം അത് കുറച്ച് നീണ്ടുനിൽക്കുന്ന ഒരു പരിപാടിയാണ് ആ അപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂർ എന്തായാലും എടുക്കും

ആ അതെ അതെ കൊണ്ട് വരേണ്ടത് നിങ്ങൾ വേറെ ഒന്നും കൊണ്ട് വരേണ്ട നിങ്ങൾ അതായത് മിന്നുകെട്ടിനുള്ള ഇപ്പം മനസമ്മതത്തിന് ആണെങ്കിൽ വേറെ കാര്യങ്ങൾ ഒന്നുമില്ല അവർക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ റിംഗ് മാത്രം മതി നിങ്ങൾ വേറെ ഒന്നും കൊണ്ട് വരേണ്ട ആവശ്യമില്ല ആ ആ അതെ അതെ അപ്പോൾ കൊണ്ടുവന്നാൽ മതി ആ അതെ അതെ അതെ പിന്നെ പള്ളീൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഇവിടെ ഓഡിറ്റോറിയം ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യാം അല്ലാതെ പള്ളീൻ്റെ ഉള്ളിൽ നമ്മളൊന്നും ആ ഇവിടെ ഓഡിറ്റോറിയം ഉണ്ട് റേറ്റ് ഓഡിറ്റോറിയത്തിന് അങ്ങനെ വലിയ കാര്യമായിട്ട് റേറ്റ് കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ എന്തെങ്കിലും സംഭാവന ആയിട്ട് നമുക്ക് തന്നാൽ മതി ഇപ്പോൾ പള്ളിയിൽ ആണെങ്കിലും ശരി ഓഡിറ്റോറിയത്തിൽ ആണെങ്കിലും നിങ്ങൾ എന്തെങ്കിലും സംഭാവന രൂപത്തിൽ തന്നുകഴിഞ്ഞാൽ മതി

ഇല്ല ഇല്ല അവിടുന്ന് തന്നെ നമുക്ക് എല്ലാ കാര്യവും റെഡി ആക്കാം നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി വേറെ വേറെ എന്തെങ്കിലും അറിയാൻ ഉണ്ടോ ആ ഓക്കെ അല്ലേ ആ എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ